ആദ്യം തന്നെ പറയാമെന്ന് വെച്ചാൽ ഇപ്പോൾത്തെ വിദ്യാലയങ്ങളില് നമ്മള് ഈ കുട്ടികൾക്ക് പഠനത്തോടൊപ്പം അവര് പഠിക്കുന്ന സംഗതികളോടൊപ്പം തന്നെ ബുക്ക് വായിച്ച് പഠിക്കുന്ന സംഗതികളോടൊപ്പം തന്നെ അവര് വിദ്യാലയങ്ങള് ഓരോ ദിവസത്തിലും ഓരോ മണിക്കൂറും വെച്ച് കുട്ടികൾക്ക് ഇങ്ങനത്തെ മേഖലകള് അതായത് കരകൗശാലമായി ഉണ്ടാക്കാൻ പറ്റുന്ന സാധങ്ങൾ പഠിപ്പിക്കുന്ന പരിശീലനം ഇപ്പം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പം ഏറ്റം വലിയൊരു കാര്യം അതായത് അങ്ങനത്തെയൊരു പരിശീലനം അല്ലെങ്കിൽ അങ്ങനത്തെയൊരു പഠന രീതി ഇപ്പോൾ ഈ വിദ്യാലയങ്ങളിൽ കണ്ട് കിട്ടുന്നുണ്ട് അപ്പം അങ്ങനത്തെയൊരു സംവിധാനം എന്തുകൊണ്ടും നല്ലതാണ് അതായത് നമ്മുടെ കുഞ്ഞു മക്കൾ പഠിക്കുന്നതിനോടൊപ്പം പുസ്തകം വായിച്ച് കിട്ടി അറിവ് ശേഖരിക്കുന്നതോടൊപ്പം തന്നെ അവര് ഇങ്ങനോരോ സാധനങ്ങള് ഏ ലൈക്ക് എക്സ്ട്രാ പോലെ പഠിക്കുമ്പോൾ അത് ഏറ്റവും വലിയ ഗുണകരം അവർക്ക് തന്നെയാണ് ഇന്നോ നാളെയോ നമ്മൾ എല്ലാവരും എന്നും ഈ പുസ്തകം വായിച്ചുള്ള പഠിപ്പുകൊണ്ട് വിവരം നേടി മാത്രം ഇതാക്കുന്നവർ ഉണ്ട് എന്നില്ല ഓരോത്തർക്കും ഓരോ വിധേനയാണ് കഴിവ് കൊടുത്തിട്ടുണ്ടാവുക ചിലർക്ക് പഠിക്കാനാവും കഴിവ് ചിലർക്ക് ഇങ്ങനത്തെ ഓരോന്ന് ഉണ്ടാക്കാനായിരിക്കും കഴിവ് പിന്നെ ഈ കരകൗശല വസ്തുക്കളുമായി ബന്ധപ്പെട്ട കുട്ടിക്കാല ഓർമ്മകള് എനിക്കുണ്ടോ ചോദിച്ചാൽ എനിക്കുണ്ട് കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ പഠിക്കണ സ്കൂളില് എനിക്ക് അങ്ങനൊരു മണിക്കൂറ് അതായത് ഓരോ ദിവസവും ലാസ്റ്റത്തെ ഒരു മണിക്കൂറ് ഇങ്ങനത്തെ സാധനങ്ങള് പഠിപ്പിക്കാൻ ഉൻ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നൊരു സംവിധാനം എൻ്റെ സ്കൂളിലുണ്ടായിരുന്നു എൻ്റെ പ പാഠ ശാലയിൽ ഉണ്ടായിരുന്നു അപ്പോഴെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പേപ്പറും തരും പിന്നെ എങ്ങനെയാണ് ഓരോ സാധനം ഉണ്ടാക്കുക അതിപ്പോൾ ഉദാഹരണമായിപ്പോൾ പാവയാണെന്നുണ്ടെങ്കിൽ പാവയെങ്ങനെ പേപ്പറുകൊണ്ടുണ്ടാക്കുക എന്ന് ആദ്യം ടീച്ചറ് കാണിച്ച് തരും എന്നിട്ട് നമ്മളതുപോലെ ഉണ്ടാക്കും അവിടേന്ന് പറയുമ്പോൾ നമ്മള് എല്ലാവരും നന്നായിട്ടുണ്ടാക്കുമ്പോൾ നമുക്ക് മനസിലൊരു ഉള്ളിലന്റുള്ളില് തോന്നും ആ എനിക്കും നന്നായിട്ടുണ്ടാക്കണമെന്ന് അപ്പം നമ്മള് നന്നായിട്ടുണ്ടാക്കുമ്പോൾ അവിടെ തന്നെ നമ്മുടെ പാവ നന്നാവും പിന്നത് മാത്രല്ല അതിന് മാർക്കും തരും പിന്നെ നന്നായിട്ട് ചെയ്തവർക്ക് മിഠായിയും തരും അപ്പോൾ അത് എന്നും ഒരു മധുരമുള്ള ഓർമ തന്നെയായിരുന്നു എനിക്ക്